ഒത്തിരി പൊലിപ്പിച്ച പുസ്തകങ്ങൾ കണ്ടിട്ടില്ല പക്ഷെ നമ്മൾക്ക് മനസ്സിലാകാത്ത ധാരാളം പുസ്തകങ്ങള് കണ്ടിട്ടുണ്ട് പക്ഷേ അതിൻ്റെ ഒന്നും പേര് ഞാൻ കറക്ടായിട്ട് ഓർത്തിരിക്കുന്നില്ല ന്ന് സൈക്കോളജിക്കൽ സംബന്ധമായിട്ടുള്ള പുസ്തകങ്ങള് അല്ലെങ്കില് ദേവി ശാസ്ത്രപരമായ പുസ്തകങ്ങള് അങ്ങനത്തെയൊക്കെ ഫിസിക്സ് ഊർജ്ജതന്ത്രം സംബന്ധിച്ചിട്ടുള്ളത് രസതന്ത്രം സംബന്ധിച്ചിട്ടുള്ളത് അങ്ങനത്തെ പുസ്തകങ്ങളൊക്കെ ചിലപ്പോൾ പലപ്പോഴും നമുക്ക് ഇത്തിരി കട്ടിയായിട്ട് അനുഭവപ്പെടാറുണ്ട് നമ്മള്ക്കത് വായിക്കാൻ ആയിട്ട് ഒരു മടിയാണ് നമുക്ക് മനസ്സിലാവുന്നത് ആണെങ്കില് നമ്മള് പെട്ടെന്ന് വായിച്ചുതീർക്കും അതുപോലെതന്നെ നമ്മക്ക് ഇൻട്രസ്റ്റിംഗായിട്ടുള്ള സബ്ജക്ട് ഒക്കെ ആണെങ്കില് പെട്ടെന്ന് വായിച്ചുതീർക്കും ഇഷ്ടപ്പെടാത്ത പുസ്തകങ്ങളോ മനസ്സിലാകാത്ത ടേംസുള്ള പുസ്തകങ്ങളൊക്കെ വായിക്കാനായിട്ട് നമുക്ക് പലപ്പോഴും മടിയാണ് അപ്പോള് നമ്മള് പാതിവഴിയിൽ ചിലപ്പോൾ ഉപേക്ഷിക്കാനും സാധ്യതയുണ്ട് സൈക്കോളജിക്കൽ ടേംസ് ഒക്കെ വരുന്ന പുസ്തകങ്ങള് ഇച്ചിരി എന്താ പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടുള്ള പുസ്തകങ്ങളൊക്കെ നമ്മള് വായിക്കാൻ ഇഷ്ടപ്പെടാറില്ല അതൊക്കെ കഴിവതും ഒഴിവാക്കിയാണ് ചെയ്യുന്നത് ഞാന് പേര് കറക്റ്റ് ആയിട്ട് ഓർക്കുന്നില്ല പക്ഷെ ഒത്തിരിയേറെ പുസ്തകങ്ങള് എൻ്റെ കൈകളില്ക്കൂടി വന്നിട്ടുണ്ട് ചിലതൊക്കെ എനിക്ക് തീരെ ഇഷ്ടപ്പെടാത്തതുകൊണ്ട് അതൊക്കെ നമ്മള് വായിക്കാതെ ചിലപ്പോൾ ഉപേക്ഷിക്കും ചിലപ്പോൾ കുറച്ച് പേജുകൾ ഒക്കെ എങ്കിലും വായിക്കാൻ ശ്രമിക്കും എങ്കിലും മുഴുവനാക്കാൻ സാധിക്കാതെ പോയ പുസ്തകങ്ങള് പിന്നെ കഥാ പുസ്തകങ്ങള് നോവലുകള് അതൊക്കെയാണെങ്കിലും നമ്മള് എപ്പോഴും വായിക്കാനായിട്ട് കൂടുതല് താല്പര്യം കാണിക്കുന്നുണ്ട് സയൻസ് ശാസ്ത്ര വിഷയങ്ങളായ ശാസ്ത്ര വിഷയങ്ങളും മനശ്ശാസ്ത്ര വിഷയങ്ങളും ഒക്കെ നമ്മൾക്ക് വായിച്ചെടുക്കാനായിട്ട് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് അങ്ങനെയുള്ള പുസ്തകങ്ങളൊക്കെ പിന്നെ വായിക്കാനായിട്ട് ബുദ്ധിമുട്ട് അനുഭവപ്പെടുന്നുണ്ട് അതേസമയം ആരോഗ്യപരമായ കാര്യങ്ങളോ അല്ലെങ്കില് മലയാള സാഹിത്യത്തെയോ മലയാള ഭാഷയോ ഇംഗ്ലീഷ് ഭാഷയില് ചെറിയ ചില കഥകളൊക്കെ വളരെ ഇഷ്ടമാണ് പക്ഷേ എല്ലാ കഥകളും ഒരുപോലെ നമ്മൾക്ക് വായിച്ച് മനസ്സിലാക്കിയെടുക്കാൻ പറ്റാത്തത് കൊണ്ട് അത് ഉപേക്ഷിക്കുകയാണ് ചെയ്യുന്നത്